ആ ഞാന് വിളിച്ചത് എന്റെ ലാൻഡ് ലൈന് ബില്ല് അടയ്ക്കാന് എനിക്ക് മതിയായ ഒരു ബാലന്സുണ്ടായിട്ട് ഞാന് അത് നിരസിച്ചെന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് എനിക്ക് ലഭിച്ചു അതിന് ഞാന് അടയ്ക്കാതിരിക്കുന്നതിനൊരു കാരണം ഉണ്ട് നിങ്ങളുടെ സേവനം എനിക്ക് തൃപ്തികരമല്ല അതുകൊണ്ടാണ് ഞാന് അടയ്ക്കാത്തത് കാരണം എന്റെയിവിടെ എനിക്ക് കുറച്ച് റെയിഞ്ച് ഇഷ്യൂസ് ഉണ്ട് ഞാനന്ന് നിങ്ങളോട് പലതവണ പറഞ്ഞതാണ് എനിക്ക് ആവശ്യത്തിന് കോൾ ചെയ്യാനോ അത്യ അത്യാവശ്യം റേഞ്ച് കിട്ടുന്നില്ല കോളുകളെല്ലാം കട്ടായി പോവുകയും പലതവണയായിട്ട് വിളിക്കുമ്പോള് ആൾക്കാർ കിട്ടുന്നില്ല എന്ന് പറയുകയും ചെയ്യുകയുണ്ടായി ഇത് ഈ കാര്യങ്ങളെല്ലാം ഞാന് നിങ്ങളോട് പലതവണയായിട്ട് ഞാന് പരാതി തന്നിട്ടുണ്ട് രേഖാമൂലം പരാതി തന്നിട്ടുള്ളതാണ് പക്ഷെ നിങ്ങള് അതിനോട് സഹകരിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാന് പൈസ അടയ്ക്കാതെ ഇട്ടിരിക്കുന്നത് നിങ്ങളെന്ത് ചെയ്യണം ഒരു കാര്യം ചെയ് നിങ്ങള് ഈ പ്രശ്നം പരിഹരിക്കുമ്പത്തേക്കും ഞാനെന്റെ പണമിടപാട് ഞാന് നടത്താം നിങ്ങള് പ്രശ്നം പരിഹരിച്ച് കഴിഞ്ഞാൽ ഞാന് കൃത്യമായിട്ട് പണം അടയ്ക്കുന്നാ അടയ്ക്കുന്നതാണല്ലോ അതുകൊണ്ട് നിങ്ങള്ക്ക് കൂടുതല് ഒന്നും പറയണ്ടകാര്യമില്ല നിങ്ങള് നിങ്ങളുടെ കാര്യം ആദ്യം ചെയ്യുക അതുകഴിഞ്ഞല്ലേ ഞങ്ങള് അതിനുള്ള ഇത് ചെയ്യേണ്ടത് ആദ്യം നിങ്ങള് ഈ പ്രശ്നം എന്റെ ഈ പ്രശ്നം പരിഹരിച്ച് തരിക അതിനുശേഷം ഞാനെന്റെ നിങ്ങള്ക്ക് തരാനുള്ള പൈസ ഞാന് തരുന്നതായിരിക്കും ഇതാണെനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞാന് ഇനിയും നിങ്ങള് ഈ കാര്യം ഇത് തന്നെയാണ് നിങ്ങള് ഈ തുടരുകയാണെങ്കില് ഞാന് നിങ്ങളുടെ സേവനം ഞാന് മതിയാക്കും ഞാന് നിങ്ങളുടെ ഇത് നിര്ത്തി ഞാന് വേറൊരു കമ്പനിയെ ഞാന് എടുക്കുന്നതാണ് അതുകൊണ്ട് ഞാന് കൂടുതലൊന്നും പറയുന്നില്ല അതുകൊണ്ട് നിങ്ങള് എത്രയും വേഗം എന്റെ പ്രശ്നം പരിഹരിച്ച് തരണം പ്രശ്നം പരിഹരിച്ചില്ലെങ്കില് ഞാന് പറഞ്ഞല്ലോ ഞാന് വേറേ കമ്പനിയിലേക്ക് ഞാന് മാറും അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം ഞാന് പരമാവധി ഒരുപാട് തവണ നിങ്ങളോട് ഞാന് പറഞ്ഞു ഒരുപാട് തവണ ഞാന് പരാതിയും തന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ക്ലി ഭാഗം നിങ്ങള് ക്ലിയറാക്കിയിട്ട് എന്നോട് വിളിക്കൂ ഞാന് നിങ്ങളുടെ നോട്ടീസിനായിട്ടുള്ള ഒരു നോട്ടീസ് അയച്ചതുകൊണ്ട് ഒരു മറുപടിയായിട്ട് വിളിച്ചെന്നേയുള്ളൂ ഇനി രേഖാമൂലം പ പറയണ മറുപടി തരണ തരണമെന്നുണ്ടെങ്കില് അങ്ങനെ വേണമെങ്കിലും തരാം അത് നിങ്ങള് പറഞ്ഞാല്മതി പറയാതെ വേറേ നിങ്ങളിതിന്റെ വരും നടപടിയായിട്ട് നിങ്ങൾ എന്ത് ആക്ഷൻ ആണ് സ്വീകരിക്കുന്നതെന്നും കൂടി പറഞ്ഞ് തന്നിരുന്നെങ്കില് വളരെ ഉപകാരമായിരുന്നു എനിക്ക് വ്യക്തിപരമായി ഒട്ടും നിങ്ങളുടെ സേവനം എനിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല